വയനാട് എന്നു പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നു തന്നെയാണ് വിനോദസഞ്ചാരം മെച്ചപ്പെടുത്തുന്നതിനു നമ്മുടെ സർക്കാരിനോടു പറയാനുള്ളത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിനോടു നമുക്ക് നൽകാനുള്ള നിർദ്ദേശം എന്നു പറയുന്നത് നമ്മുടെ ഗതാഗതം ഗതാഗതം മെച്ചപ്പെടുത്തുക എന്നതു തന്നെയാണ് നമ്മുടെ ഗതാഗതത്തിനു ആവശ്യമായ റോഡുകൾ റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണ് പൊട്ടിപൊളിഞ്ഞ റോഡുകളും അതുപോലെ തന്നെ എന്താ പറയുക റോഡുകൾ എന്നു പറയുന്നത് വളരെ വളരെ അവസ്ഥ ദയനീയം ആയിട്ടുള്ളതാണ് ഈ റോഡുകളുടെ അവസ്ഥയൊക്കെ നല്ല രീതിയിൽ നന്നായി മെച്ചപ്പെടുത്തണം എന്നാണു പറയാനുള്ളത് ടാർ ഇടുകയും അതുപോലെ ഗതാഗതം കൂടുതൽ മെച്ചപ്പെടുത്തുക ഓരോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഉള്ള വാഹനങ്ങൾ ഏർപ്പെടുത്തുക പിന്നെ അതു കൂടാതെ വയനാട് എന്നു പറയുമ്പം നമ്മുടെ എന്താ പറയുക വന്യജീവി വന്യജീവികൾ വളരെ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ്